ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മള് കൂടുതലായിട്ടും പരസ്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടിവിലൊക്കെ പരസ്യം ചെയ്യുകയാണെങ്കില് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ടിവിലൊക്കെയാണ് കൂടുതലായിട്ടും പരസ്യം നല്ല രീതിയില് എത്തിക്കാൻ വേണ്ടി സാധിക്കുക കാരണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടി വി ഇപ്പോൾ എന്തായാലും ഒഴിച്ച് കൂടാൻ പറ്റാത്തെ ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളുടെ നമ്മള് വീട്ടമ്മമാര് അമ്മമാര് പെങ്ങമ്മാര് എല്ലാവരും ഇപ്പോൾ സ്ത്രീകള് തന്നെ കൂടുതലായിട്ടും ടിവിയിലാണ് അവരുടെ ഒഴിവു സമയങ്ങളൊക്കെ ചിലവഴിക്കുക ചിലവഴിക്കുക അപ്പം അവര് കൂടുതലായിട്ടും സീരിയലും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പരസ്യങ്ങളൊക്കെ ഇടുന്നവര് ഇഷ്ടംപോലെയുണ്ട് കാരണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീട്ടമ്മമാരുപയോഗിക്കുന്ന പല സാധനങ്ങളും അവര് ടിവിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പം അത് കൂടുതലായിട്ടും ഈ ടിവികളില് പരസ്യം ചെയ്തിട്ടാണവര് വാങ്ങുക ഇപ്പം നമ്മള് നമ്മുടെ ഷാംപൂ പിന്നെ മിക്സി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും ടിവിയില് പരസ്യം കണ്ട് പ്രീതിന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാര്യങ്ങളൊക്കെ വരും അപ്പോ അതൊക്കെ നമ്മള് ടിവിയില് കണ്ടിട്ടാണ് കൂടുതലായിട്ടും വാങ്ങുന്നത് അപ്പം അല്ലാത്തവരെന്നു പറഞ്ഞാൽ ഇപ്പം നമ്മുടെ യുവാക്കളിലേക്കും എന്താ പറയുക യുവതികളിലേക്കൊക്കെ എത്തിക്കണമെങ്കില് കൂടുതലായിട്ടും നമ്മള് ഫോണിലൊക്കെ പരസ്യം ചെയ്യൂല്ലേ അതാണ് കൂടുതലായിട്ടും അവർക്ക് മനസിലാവുന്ന രീതിയില് കിട്ടുന്നത്